ട്രാവൽ ഏജൻസി അല്ലേ ആ ഞങ്ങൾ ഒരു ദിവസത്തെ ഒരു പാക്കേജാ ഉദ്ദേശിക്കുന്നത് ആ ഗുരുവായൂർ അമ്പലം വരെ പോകാനാണെ ആ ഞാൻ ഞങ്ങൾ ഞാൻ ഇപ്പോൾ തിരുനക്കരേന്ന് ആണ് വിളിക്കുന്നത് ആ എൻ്റെ പേര് ആ എൻ്റെ പേര് നിത്യ ആ ഞങ്ങൾ അഞ്ച് പേർ ഫാമിലി അഞ്ച് പേരാ പോകാൻ ഉദ്ദേശിക്കുന്നെ അപ്പം ആ നിങ്ങടെ പാക്കേജ് എത്രയാന്ന് ഒക്കെ അറിയാൻ ആയിട്ട് ആയിരുന്നു ആ ഞങ്ങൾ ആ അടുത്ത മാസം പതിമൂന്നിന് പോകാൻ ആയിട്ടാണ്

അല്ല അല്ല ഇടയ്ക്ക് അമ്പലങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ കയറിയിട്ട് പോയാലും മതി ആ അതാ ഞങ്ങൾക്കും വേണ്ടത് ആ ആ അത് മതി അപ്പം നിങ്ങടെ കാര്യം നിങ്ങടെ പാക്കേജും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഞങ്ങൾ അറിയുന്നത് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ശരി ഞാൻ കോൺടാക്ട് ചെയ്യാം പിന്നെ ആ ഡേറ്റ് ഫിക്സാ

ആ ഓക്കെ ഓക്കെ ആ ശരി